ഇപ്പം എനിക്ക് അറിയാം തദ്ദേശീയ കലാരൂപങ്ങളെന്ന് പറയുമ്പോൾ കഥകളി പിന്നെ കുച്ചിപ്പുടി ഭരതനാട്യം അതൊക്കെ അതൊക്കെ ഓരോ കലാരൂപങ്ങളാണ് അതുപോലെ തന്നെ അപ്പം നമ്മൾ ഓരോ ഓരോ കഴിവുകൾ പല രീതിയിൽ നമ്മൾ കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കലാരൂപം എന്നു പറയുമ്പോൾ മൊത്തത്തിൽ എഴുതുന്നത് ഈ എന്താണ് ഇപ്പം പറയാം ചില കലാരൂപങ്ങൾ കഥകളി ഒരു കലാരൂപമാണ് അതേപോലെ കുച്ചിപ്പുടി ഭരതനാട്യം ഇതൊക്കെ ഒരു കലാരൂപങ്ങളാണ് തെയ്യം തെയ്യം എന്നൊക്കെ പറയുന്ന കല മെയിനായിട്ട് തെയ്യത്തിനൊക്കെ തെയ്യം എന്നൊക്കെ പറഞ്ഞാൽ കണ്ണൂർ ഭാഗങ്ങളൊക്കെയാണ് കൂടുതൽ തെയ്യങ്ങളുടെ നാടെന്ന് അറിയപ്പെടുന്നത് തന്നെ കണ്ണൂരാണ് അതൊക്കെ ഓരോ കലാരൂപങ്ങളും കാര്യങ്ങളൊക്കെയാണ് കഥകളി ഒരു കലാരൂപമാണ് ചാക്യാർ കൂത്ത് ചാക്യാർകൂത്തെക്കെ ഒരു ഒരേ കലാ തദ്ദേശീയ കലാരൂപങ്ങൾക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഥകളി ചാക്യാർകൂത്ത് പിന്നെ കുച്ചിപ്പുടി ഭരതനാട്യം ഇതൊക്കെ കലാരൂപങ്ങളാണ് അതേപോലെ തെയ്യം ഇതൊക്കെ ഒരു ഇതാണ് ഇതിൻ്റെ പ്രത്യേകത് ഇതിനൊക്കെ ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളും ഉണ്ട്